പീനൽ റസ്റ്റോററ്റ് ആണോ ഉ കുറച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ ഓഡറ് ചെയ്യാൻ വേണ്ടി ആയിരുന്നേ ആ നമുക്ക് നാളത്തേക്ക് വേണ്ടിയാണ് അപ്പം നാളെയാണ് നിങ്ങൾ എത്തിച്ച് തരണ്ടത് നിങ്ങള് വീട്ടില് ഹോം ഡെലിവറിയിണ്ടോ ആ അങ്ങനെ ആണെങ്കില് നാളെ എത്തിച്ച് തന്നാൽ മതി ആ ഞാൻ ആ ലിസ്റ്റ് പറയാം നമുക്ക് മോർണിംഗ് നിങ്ങളുടെ അവിടെ എന്തൊക്കെയാണ് ഉള്ളത് കുറച്ച് കസിൻസ് വരുന്നുണ്ട് അപ്പം നമുക്ക് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഓഡറ് ചെയ്യാൻ വേണ്ടി അധികം ഒന്നുമില്ല കുറച്ച് പേരെ ഉള്ളു രാവിലെ നമുക്ക് പിന്നെ ഇടിയപ്പവും മുട്ട കറിയും മതി അത് ഒരു പത്ത് സെറ്റ് അങ്ങനെ തന്നാൽ മതി പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് ഒരു പത്ത് ബീഫ് ബിരിയാണി ആ ആ അതെയതെ പിന്നെ നമുക്ക് ഈവനിംഗ് സ്നാക്സ് എന്തെങ്കിലും അതായത് പഴം പൊരിയോ പരിപ്പ് വടയോ അങ്ങനെ എന്തെങ്കിലും ഒരു പത്ത് പതിനഞ്ചണ്ണം അത് കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നും ഇല്ല പിന്നെ നൈറ്റ് എന്തെങ്കിലും ചപ്പാത്തി പൊറോട്ട അങ്ങനെ എന്തെങ്കിലും പിന്നെ അതിന് പറ്റിയ കറി അതായത് നോൺ വെജ്ജ് കറി മതി കെട്ടോ വിലാസം എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ പര്യാരം ഹൗസ് കോഴിക്കോടാണ് കോഴിക്കോട് ടൗണിൽ തന്നെയാണ് അപ്പോൾ നമ്മളെ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി കെട്ടോ ആ ഓക്കെ ഓക്കെ താങ്ക് യു